ഞങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾ കമ്പോളമായിട്ട് കുറച്ച് ദൂരെയാണ് പക്ഷേ അവിടന്ന് ഇപ്പോൾ നമ്മളുദ്ദേശിക്കുന്ന സൈസ് വണ്ടി വാഹനം സൗകര്യം ചിലപ്പോൾ കിട്ടാൻ പ്രയാസം ഉണ്ട് അപ്പം കുറച്ച് കഷ്ടപ്പെട്ട് വാഹനം ഏതെങ്കിലും രീതിയിൽ വാഹനം വന്നാൽ ചിലപ്പോൾ നമ്മളുദ്ദേശിക്കുന്ന സൈസുള്ള വാഹനം അല്ലായിരിക്കും ചിലപ്പോൾ ചെറിയ വണ്ടിയായിരിക്കും അങ്ങനെയൊക്കെ ആവുമ്പോഴ്ത്തേക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പം രണ്ട് വണ്ടി പിടിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ എങ്ങനേങ്കിലും ചിലപ്പോൾ വരുന്ന വണ്ടി ഒരു നമുക്ക് പറ്റിയ ആൾക്കാരുമല്ല അപ്പോഴ്ത്തേക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കമ്പോളത്തിൽ എത്തി കഴിഞ്ഞാൽ പിന്നവിടെന്ന് ഈ സാധനം അപ്പോൾ അൺലോഡ് ചെയ്ത് ഇറക്കുന്നതും മറ്റേ അതുപോലുള്ള ഓരോ കാര്യങ്ങളുണ്ട് അവിടുത്തെ ആൾക്കാരുടെ ആൾക്കാരും എല്ലാം കൂടെ ആവുമ്പോളത്തേക്ക് നമ്മൾ ശരിക്ക് ഈ സാധനം എത്തിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ അഥവാ ഈ വണ്ടി വരുമ്പോൾ ആ വണ്ടിക്കാർ നമ്മളുദ്ദേശിക്കുന്ന പൈസ അല്ലായിരിക്കും അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് നല്ല നല്ലൊരു പൈസ അവർ കാശ് ചോദിക്കും വണ്ടി ചാർജായിട്ട് അപ്പം അതും കമ്പോളത്തിൽ ചെല്ലുമ്പോളത്തേക്ക് നമുക്ക് കിട്ടുന്ന വിലയും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു നമുക്ക് താങ്ങാനാകാത്ത കാര്യമായിരിക്കും പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മളനുഭവപ്പെടുക അപ്പം ശരിക്കും മെയിനായും മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കമ്പോളം ദൂരെയാണ് ഒന്ന് ദൂരെയാണ് അത് എത്തിച്ച് ആ കറക്റ്റ് സമയത്ത് വണ്ടി വരത്തില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി വണ്ടി കാണണം പക്ഷേ ആ വണ്ടി ഇത് നമ്മളുദ്ദേശിക്കുന്ന സൈസുള്ള വണ്ടി നമ്മുടെ കയ്യിലില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇവരെ ആശ്രയിക്കേണ്ടി വരും അപ്പം അങ്ങനെ വന്നെങ്കിൽ വന്നു അങ്ങെനയൊക്കെയാണ് ഇച്ചിരി ബുദ്ധിമുട്ടി ഞങ്ങളനുഭവിക്കുന്നത് വണ്ടി പ്രശ്നത്തിന് മെയിൻ